പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഒമ്പത് പത്ത് നാല് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി പതിനെട്ട്